കായിക രംഗത്ത് വിജയവും പരാജയവും അത് ഒരു കായിക താരത്തിൻ്റെ മനസ്സോടെത്തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് കായിക താരത്തിൻ്റെ മനസ്സ് എന്ന് പറയുമ്പൊഴ് അതായത് നമ്മളിപ്പോൾ ഒരു ഒരു കളി ഒരു സ്പോർട്സ് നടത്തപ്പെടുമ്പോൾ അത് എന്തു ആയിക്കോട്ടെ അതില് ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ടാകാം അപ്പോൾ അതിൽ എന്തായാലും കുറെ ആളുകളൊക്കെ തോൽക്കേണ്ടി വരും അല്ലെ അപ്പോൾ നമ്മൾ ഒരു മത്സരമാകുമ്പോൾ അതപ്പോ എന്ത് തരം മത്സരമായാലും അതില് എന്തായാലും കുറെ ആളുകൾക്ക് വിജയമുണ്ടാകും കുറെ ആളുകൾക്ക് പരാജയവും ഉണ്ടാവും അത്കൊണ്ട് തന്നെ നമ്മളൊരു കായികരംഗത്ത് തീർച്ചയായിട്ടും അത്തരത്തില് തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് അത് രണ്ടും നമ്മള് സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം പരാജയങ്ങള് എങ്ങനെയാണ് മികച്ച പ്രകടനം നടത്താൻ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് ഇപ്പോൾ ഒരുപാട് ആളുകളാണ് മത്സരത്തിന് ഉണ്ടാവുക അപ്പോൾ ഒരാള് ജയിക്കുന്നു ബാക്കിയാളുകള് പരാജയപ്പെടുന്നു എന്ത്കൊണ്ട് നമ്മള് പരാജയത്തിൽ നിന്നാണ് വിജയത്തിലേക്ക് നടക്കാനായിട്ട് പറ്റുക പരാജയത്തിൽ പരാജപ്പെടുമ്പോഴാണ് അവിടെയാണ് എനിക്ക് കുറവുകൾ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മുന്നേറിയ ആളുകൾ എവിടെയാണ് കൂടുതൽ മെച്ചപ്പെട്ടത് എന്നെക്കാൾ അത് മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിച്ചിട്ട്ള്ളത് അത് അത് കണ്ടുപിടിക്കാനും അതിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യാനും ആ ഒരു പോരായ്മ നികത്തി നമ്മളുടെ കുറവെന്താണെന്നുള്ളത് വിജയം നോക്കുമ്പോളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക അതല്ലേ അതൊര് മത്സരമാണ് ആദ്യം ചില ചില മത്സരങ്ങളിൽ ആദ്യം ആരെത്തുന്നു ചില മത്സരങ്ങളിൽ അവസാനം ആരെത്തുന്നു അപ്പോൾ ആ മത്സരത്തിനെ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ഗതികളെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് എന്തായാലും പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാന വാക്കല്ല അടുത്തെ പ്രാവശ്യം വിജയിക്കാനുളള വിജയത്തിലേക്ക് നടക്കാനുള്ള ഒരു വഴിയാണ് പരാജയം അപ്പോൾ അത്തരത്തിൽ തന്നെ ഈ കായിക രംഗത്ത് വിജയത്തിനേയും പരാജയത്തിനെയും കാണേണ്ടതാണ് അങ്ങനെ മുന്നേറിക്കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻകഴിയും എന്തായാലും കുറച്ച് ആളുകള് പരാജയപ്പെട്ടേ പറ്റുകയുള്ള എല്ലാവർക്കും വിജയിക്കാനായിട്ട് പറ്റില്ല അതാണ് കായിക രംഗത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ പരാജയം എന്ന് പറയുന്നത് വിജയത്തിലേക്ക് നടക്കാനുള്ള ഒരു വഴി തന്നെയാണ്